നമുക്കിപ്പം പറയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവസരങ്ങളും ഒരുപാടുള്ളൊരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല നമുക്കിപ്പോ സ്കൂളുകൾ ആണെങ്കിലും കോളേജുകൾ ആണെങ്കിലും സർവകലാശാല നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് നമുക്ക് ഇവിടെ പിന്നെ തൊഴിലധിഷ്തിത അധിഷ്ഠിത പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ സ്കൂൾ ഫീസ് ഒക്കെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകള് ഒക്കെയാണെങ്കിൽ നമുക്ക് താങ്ങാവുന്ന തന്നെയാണ് സ്കൂൾ ഫീസ് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പ്രൈവറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റില് പഠിപ്പിക്കണമെങ്കില് അതായത് ആ കുട്ടിൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം പൈസ ഉള്ളത് കൊണ്ടാണല്ലോ പ്രൈവറ്റിൽ പഠിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ കോളേജുകളിൽ ഒക്കെ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫീസ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് അതായത് ഓരോ കോഴ്സിന് അനുസരിച്ച് ഫീസ് കാര്യങ്ങളൊക്കെ വരും പിന്നെ അതിപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫീസ് ഒക്കെ താങ്ങാവുന്ന പാകത്തിനുള്ളതായിരിക്കും പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കോഴ്സ് ഉണ്ട് ഇപ്പോൾ നേഴ്സിങ് ആണെങ്കിലും പിന്നെ എം ബി ബി എസ് ആണെങ്കിലും എല്ലാം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കെഎംസിടി മെഡിക്കൽ കോളേജ് ഉണ്ട് നമുക്ക് ഇവിടെ പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ സർവീസുകൾ ഒരുപാട് അതായത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ഏവിയേഷൻ കോഴ്സുകൾ അങ്ങനെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കിവിടെ കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ നമുക്ക് ഒരുപാട് സ്കോപ്പുള്ള ജോലി കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ ഒരുപാടുണ്ട്